ആ ഹലോ ആ ഗുഡ് മോണിംഗ് സാറേ നമ്മുടെ ഇത് അയർ അയർക്കുന്ന് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തേ ഇന്നലെ രാത്രി മോഷണം നടന്നാരുന്നേ അ രാത്രീലവരവിടെ കിടന്നോണ്ട് അയ്യോ കള്ളൻ കേറി കള്ളൻ കേറീന്നൊക്കെ വിളിച്ച് പറയന്നൊണ്ടായിരുന്നു അപ്പോൾ അതിന് തൊട്ടടുത്തന്നെ ഒര് ഷാപ്പും കൂടൊണ്ടേ അവിടെ അവിടുന്ന് ഭയങ്കര ബഹളായതുകൊണ്ട് നമ്മളോർത്തതെന്താന്ന് വെച്ചാൽ അവിടുന്നായിരിക്കും രാത്രിയില് ബഹളമെന്നാണ് ഓർത്തത് ഇവരാ ഇവരുടെ അത്ര നമ്മള് ശ്രദ്ധിച്ചില്ല നമ്മളെല്ലാരും രാത്രി കുറെ രാത്രിയായാരുന്നേ അപ്പോൾ രാവിലെ അവര് വന്നിട്ട് പറഞ്ഞു രാത്രി രണ്ടാന്നെലേടെ കതക് പൂട്ട് പൊളിച്ചാണ് അകത്ത് കയറിയിരിക്കുന്നത് അപ്പോൾ ഇവര് കള്ളനെ കണ്ടോണ്ടാണ് ഇവര് അയ്യോ കള്ളൻ കള്ളൻ എന്ന് കാറിയത് അപ്പോൾ മുഖം മൂടിയെല്ലാം വെച്ചിട്ടുണ്ടാരുന്നേ ഇവര് പിന്നെയങ്ങ് ഭയന്ന് പോയെന്ന് പറഞ്ഞു അലമാരി തുറന്ന് കൊറച്ച് സ്വർണ്ണൊണ്ടാരുന്നു ഒരു പത്തെഴുപതിനായിരം രൂപായും ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് അതുവെല്ലാം എടുത്തോണ്ട് പോയവൻ അതിൻ്റെ തൊട്ട് അപ്പുറത്തെ മുറിയുടെ കതക് കതക് പൂട്ട്

പിന്നെ നമ്മുടെ വീടിന് അടുത്താണ് നമ്മുടെ വീടിന് അടുത്താണ് അതിനടുത്ത് ഒര് അഞ്ചാറ് മാസം മുമ്പ് വേറൊരു വീട് ഇതുപോലെ കുട്ടിപൊ കുത്തിപൊളിച്ച് കേറുവായിരുന്നു അവിടെ ആൾക്കാര് താമസം ഇല്ലാരുന്നു അപ്പം ആ വീട്ടിലും മോഷണം നടന്നതാണ് അവര് കേസൊക്കെ കൊടുത്തിട്ടുള്ളതാണ് പോലീസ് അന്വേഷണമൊക്കെ നടത്തിയിട്ടുള്ളതാണ് ആ പിന്നെ ഇവരെയൊന്നും ഉപദ്രവിക്കുകയും കാര്യങ്ങളും ഒന്നും ചെയ്തൊന്നുമില്ല കേട്ടോ അവർക്ക് കിട്ടാനുള്ളത് കിട്ടി പോയി അലവാങ്ക് ഇല്ലില്ല ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അവര് വീടിൻ്റെ താഴെ കിടന്ന് അലവാങ്കൊക്കെ കിട്ടിയിട്ടുണ്ട് കുത്തി തുറക്കാനുപയോഗിച്ച അലവാങ്കൊക്കെയേ ഇത്ര എന്തോ ആ അലവാങ്ക് കിട്ടിയിട്ടുണ്ട് അലവാങ്ക് കമ്പിയേ കമ്പി കിട്ടിയിട്ടുണ്ട് അതവിടെ കിടപ്പുണ്ട് അല്ല നമ്മള് ആ അവരല്ല അവരല്ല അവരല്ല അവരും ഉണ്ട് അയൽവക്കകാരെല്ലാം കുറെ പേരെല്ലാരും വന്ന് നിൽപ്പുണ്ട് കള്ളൻ കേറിയെന്ന് കേട്ടപ്പത്തേനെ മക്കത്തി ആ ശരി സാറേ അത് നമ്മുടെ ആറുമാനു പുളിഞ്ചോടെന്ന് പറയും പുളിഞ്ചോടെ ആ പുളിഞ്ചോടിന് തൊട്ട് ചേർന്നൊരു പാലമാണ് ചേന്നാട്ട് പാലം എന്ന് പറയും ആ പാലത്തോട് തൊട്ട് ചേർന്നിരിക്കുന്ന വീടാണ് ആ ആ ആ

ആ താങ്ക്യൂ സാറേ